ഞാൻ ഞാൻ വിളിച്ചതേ എൻ്റെ മറ്റേ മറ്റേ ഓണത്തിൻ്റെ സാരി ഞാൻ തന്നിട്ടുണ്ടായിരുന്നേ അവിടെ അപ്പോൾ എൻ്റെ പേര് അലീനയാണെ അലീന മരിയ കുര്യാക്കോസ് ആണെ ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽനിന്നാണെ വിളിക്കുന്നത് കാരണം ഞാൻ എൻ്റെ കസിൻ്റെ കസിൻ്റെയിൽ ആയിരുന്നു ഏൽപ്പിച്ചത് ആ സാരി അവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി അതൊന്ന് ഓൾട്റ് ചെയ്യാൻ വേണ്ടിയേ അപ്പം അത് എന്നത്തേക്ക് ആകുമെന്ന് ഒന്ന് അറിയാമോ അതൊന്ന് ഒന്ന് ഒന്ന് ശരിയാക്കുവായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേന്നെ പെട്ടെന്ന് തന്നെ രണ്ട് രണ്ടുദിവസം എടുക്കുമോ അതോ ഇനി അടുത്ത ആഴ്ചത്തേക്ക് ആകുമോ മ്മ് പരിപാടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പക്ഷേ എനിക്കത് നേരത്തെ കിട്ടുവായിരുന്നെങ്കിൽ നമുക്ക് അതൊന്ന് അറിയാമല്ലോ ഒന്ന് ഇട്ടു നോക്കിയിട്ട് എല്ലാം ഓക്കേയാണോ അല്ലയോ നോക്കണമായിരുന്നു ആ ഹാ ഹാ ആ അപ്പം നമ്മൾ ഇടുന്ന അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഇപ്പം സാരിയാണെങ്കിലും അതിൻ്റെ ഒരു അതിൻ്റെയൊരു നല്ലൊരു ഭംഗി കൂട്ടുന്ന രീതിയിൽ ഒന്ന് ആക്കി തരുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ നിങ്ങൾക്ക് ഓണത്തിന് ഒരുപാട് വർക്ക് കിട്ടാറുണ്ടോ ഒരുപാട് പണി കിട്ടാറുണ്ടോ ഓക്കെ ഓക്കെ അത് ചെയ്ത് തന്നാൽ മതി ആക്ച്വലി സമയം ഉണ്ടല്ലോ എന്നാൽ ശരി എന്നാൽ